ഞാൻ മീഷോയിൽ നിന്ന് ഒരു കുർത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ക്വാളിറ്റി നല്ല അടിപൊളിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെന്താണ് അതിൻ്റെ പ്രിൻ്റെടൊക്കെ ഭയങ്കര എന്താണ് പറയുക നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ പിന്നെ ഞാൻ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് സാധനം മേടിച്ചത് പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും ചീപ്പ് റേറ്റിന് ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ഡ്രെസ്സ് കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ അതിൻ്റെ കളറൊന്നുമൊട്ടും മങ്ങണില്ല ഞാൻ എന്നും അന്ന് മേടിച്ചോ അതുപോലെ തന്നെ ഇത്രയും ദിവസമായിട്ട് അത് കഴുകിയിട്ടും നല്ല ഭഒഗിയായിട്ട് തന്നെ ഇരിക്കണുണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് അത് ആ ഡ്രെസ്സ് മേടിച്ചിട്ട് ഇങ്ങനെ ഒട്ടും പ്രതീഷിച്ചില്ല ഇത്രയും നല്ല ഡ്രെസ്സ് കിട്ടുമെന്ന് പിന്നെ അതിൻ്റെ ഞാൻ ലാർജ്ജ് സൈസ്സ് മേടിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഇച്ചിരി ലൂസ് അരി പക്ഷെ ഒരു വിധം കറക്റ്റാണ് ചെറുതായിട്ട് ഷേയ്പ്പ് ചെയ്യാൻ അങ്ങനത്തേ മാത്രം ഉണ്ടായുള്ളൂ പിന്നെ എന്തവാ കഴുത്തൊക്കെ കറക്റ്റ് ലെവലായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് മീഷോയിൽ ഞാൻ ഇനി ഞാൻ ഡ്രെസ്സുകളൊക്കെ മേടിക്കും